എന്റെ പ്രദേശത്ത് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ സ്കൂളുകളിലൊക്കെ പറയുവാണെങ്കിൽ എന്റെ പ്രദേശത്തുള്ളത് ഇപ്പോൾ വിജയ സ്കൂൾ ജയശ്രീ പിന്നെ പെരിക്കല്ലൂർ അങ്ങനെ മുള്ളംകൊല്ലി ഇവിടെയൊക്കെയാണ് കൂടുതലുമായിട്ട് സ്കൂളുകൾ അങ്ങനത്തെ സ്കൂളുകളാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് പിന്നെ കാപ്പിസെറ്റ് ഒരു സ്കൂൾ ഉണ്ട് അത് ഈ ആദിവാസി വിഭാഗങ്ങളിൽ ഉള്ളവർക്കായിരുന്നു കൂടുതലായിട്ട് അവിടെ മുൻഗണന പണ്ട് ആദിവാസികൾക്കായിട്ട് സ്ഥാപിച്ച ഒരു സ്കൂൾ ആയിട്ടാണ് അത് കരുതുന്നത് എന്നാൽ ഇന്ന് ഇപ്പോൾ അവിടെ ആദിവാസികൾ മാത്രമല്ല എല്ലാ കുട്ടിയുടെയും ഒരേ രീതിയിൽ തന്നെ പഠിപ്പിക്കാനും അവരെ അവരുടെ കഴിവുകൾ മുമ്പോട്ട് കൊണ്ടുവരാൻ ഒക്കെ ആ സ്കൂൾ വലിയ രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പം പറയുവാണെങ്കിൽ തന്നെ വിജയ സ്കൂൾ ആയാലും ജയശ്രീ സ്കൂൾ ആയാലും കാപ്പിസെറ്റ് സ്കൂൾ ആയാലും മുള്ളൻകൊല്ലി സ്കൂൾ ആയാലും അവിടെയൊക്കെ അധ്യാപകർ നല്ല രീതിക്ക് തന്നെ എഫേർട്ട് എടുത്തിട്ട് കുട്ടികളെയൊക്കെ നല്ല രീതിക്ക് പഠിപ്പിക്കുക അവർക്കൊക്കെ നല്ല ഉയർന്ന വിജയം നേടിയെടുക്കാനൊക്കെ സഹായിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ അഡ്മിഷന് വേണ്ടിയിട്ട് ഈ സ്കൂളുകളാണ് കൂടുതലായിട്ടും തിരഞ്ഞെടുക്കുന്നത് സ്കൂളുകളിലൊക്കെ എന്ന് പറയുമ്പോൾ ടീച്ചർമാരൊക്കെ നല്ല രീതിക്ക് തന്നെയാണ് കുട്ടികളോടൊക്കെ ഇടപഴകുന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള മടിയും കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ കുറവാണ് എല്ലാവരും തന്നെ സ്കൂളിനെ സ്നേഹിക്കുകയും സ്കൂളിലേക്ക് പോകനൊക്കെ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രദേശത്ത് കൂടുതലായിട്ടും ഉള്ള സ്കൂളുകൾ ഇതുതന്നെയാണ് പിന്നെ തീരെ ചെറുതെന്ന് പറയാനാണെങ്കിൽ ചെറ്റപ്പാലത്ത് ഒരു സ്കൂൾ ഉണ്ട് ആടികുല്ലി അങ്ങനെ സ്കൂൾ ഈ നാലാം ക്ലാസ് വരെയൊക്കെ ഉള്ള സ്കൂളുകളാണ് അവിടെയുള്ളത്